എൻ്റെ നാട്ടിൽ മേയ്ൻ ആയിട്ടുള്ളത് ഒരു പള്ളിയാണ് അവിടെ എല്ലാവരും പാർത്ഥിക്കുന്നത് യേശു ക്രിസ്തൂവിനെയാണ് അവർ ഫോളൊ ചെയ്യുന്നത് എല്ലാ ദിവസവും പള്ളിയിൽ പോവും പിന്നെ അവർ പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ ദൈവത്തിന് വേണ്ടി കണ്ണീരൊഴിച്ച് അവർ പ്രാർത്ഥിക്കും അവർ ആ വിശ്വാസം അങ്ങനെ അ തുടർന്നുപോകുന്നു പാരമ്പര്യമായി ആ പള്ളി വന്നതിന് ഒരു ചരിത്രമുണ്ട് പണ്ട് സെബസ്ത്യാനോസ് എന്ന് പറഞ്ഞ ഒരു പുണ്യാളനുണ്ട് നമ്മുടെ ഒരു പട്ടാളക്കാരനായിരുന്നു അദ്ദേഹം അദ്ദേഹം ബാലരാമപുരത്ത് പണ്ട് പ്രത്യക്ഷപ്പെട്ടോ എന്നോ ഉള്ളൊരു ഒരു ആ ഒരു വിശ്വാസം അവിടുത്തെ ആൾക്കാരിലുണ്ട് അങ്ങനെ ആദ്യം അതൊരു ചെറിയ ഷെഡ്ഡ് ആയി പിന്നെ പള്ളിയായി പിന്നെ ഇന്ന് കാണുന്ന ഒരു സെബസ്ത്യാനോസിൻ്റെ പേരിലുള്ളൊരു പള്ളിയായി ഇതാണ് പാരമ്പര്യമായിട്ട് ഞങ്ങളെ നാട്ടിൽ വന്ന ഒരു ക്രിസ്തുമതം വന്നത് ഇങ്ങനെയൊക്കെയാണ്